ആ ഇത് മഹാരാഷ്ട്ര ബാങ്കല്ലേ മഹാരാഷ്ട്ര ബാങ്ക് ആ ഇത് സാർ എനിക്ക് ആ എനിക്ക് ഒരു ലോണ് വേണമായിരുന്നു വീട് വെക്കാനുള്ളതാണ് ആ അത് ഓക്കെ മാം ഞാൻ ആ ശരിയായിട്ടുണ്ട് മാം പിന്നെ ഇല്ലേ മാം എന്തൊക്കെയാണ് അതിന് വേണ്ടത് ഇപ്പോൾ ഒരു ലോൺ വാങ്ങാൻ ആ ഞാൻ കുറച്ച് ലോങാ

ആ ഓക്കെ മാം ഞാൻ ട്രൈ ചെയ്യാം ആ എന്തൊക്കെയാണ് വേണ്ടത്

ആ ഓക്കെ മാം ആ പിന്നെ വേറെ എന്തെങ്കിലും ആ എത്ര ആ അത് കിട്ടുമ്പോൾ എത്ര ടൈമാവും മാം ടു മന്ത്സോ ഓക്കെ അതിന് ഇൻ്ററസ്റ്റ് എത്ര വരും മാം ഇൻ്ററസ്റ്റ് ഒന്ന് ഓക്കെ ഒരു എത്ര വരുമെന്ന് അറിയാൻ പറ്റുമോ മാം ടെൻ തൗസൻഡാ ഓക്കെ

ഓക്കെ അത് ആയിട്ടാണ് മാം പിന്നെ ഇല്ലേ മാം

പിന്നെ സിഗ്നേച്ചറ് വേണ്ടേ സിഗ്നേച്ചറ് ഓക്കെ ഓക്കെ ആ നോമിനി നോമിനി വേണോ മാം

ആ വരാം വരാം മാം അടുത്താഴ്ച തന്നെ വരാം ഓക്കെ അടുത്താഴ്ച്ചയിൽ വരാം ഓക്കെ ഓക്കെ മാം ബൈ ആ വെൽക്കം